ഞാന് പൊതുവേ പുറത്തുനിന്നു ചെടികളങ്ങനെ വാങ്ങി കുഴിച്ചിടാറില്ല പുറത്ത്ന്ന്ന്ന് പറഞ്ഞാല് പുറത്തുനിന്നു വാങ്ങിക്കഴിഞ്ഞാല് അത് നല്ലവണ്ണം നമ്മള് കെയര് ചെയ്യണം അല്ലെങ്കില് ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മള് നമ്മളെ വീട്ടിലുള്ളതോ മറ്റുള്ള വീട്ടില്നിന്ന് എവിട്ന്നേലും കണ്ടു കൊണ്ടുവരികയോ ഒക്കെ ചെയ്താല് അത് മണ്ണില് നട്ടുകൊടുത്താല് തന്നെ വേഗം ഉണ്ടാവും മുല്ല റോസ് മല്ലിക ജമന്തി ഇങ്ങനത്തൊക്കെ ചെടികള് നമ്മള്ക്ക് അത്ര ഒരു എന്താ ചെലവേറിയ ഒരു ഇതല്ല നമ്മള് ട് കുഴിച്ചിട്ടു കൊടുത്താല് മതി അവ താനേ ഉണ്ടായിക്കോളും നേരെമറിച്ച് നമ്മള് പുറത്തുനിന്നു വാങ്ങുന്ന ചെടികള് വെച്ചെങ്കില് നല്ലവണ്ണം അത് ആഴ്ചയിലെന്ന് പറയുമ്പോള് അത് മണ്ണ് മാറ്റിയിട്ടും വളം ഇട്ടിട്ടും നല്ലവണ്ണം നമ്മള് ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കില് അത് വേഗം പോകും അതുകൊണ്ട് വല്ലാതെ ഈ ചെടിക്ക് ചെലവ് വന്നിട്ടില്ല പിന്നെ എന്തെങ്കിലും ലേശം വളം എന്തെങ്കിലും വാങ്ങേണ്ടിവരും ഇതേ ഉള്ളു വരലേ ഉള്ളു പിന്നെ മറ്റുള്ള വീടുകളിലൊക്കെ ഓരോ ചെടികള് കാണുമ്പോള് അവിടുന്ന് ചോദിച്ച് കൊണ്ടുവരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ വല്ലാതെ നമ്മള് കടയില് പോയി ഒന്നും വാങ്ങിയാണ്ട്ല്ലൊരു ഇതില്ല പിന്നെ വളം വേണ്ട ചെടിക്ക് മാത്രമേ ലേശം വളമൊക്കെ വാങ്ങി ഇടുകയുള്ളൂ അല്ലാത്ത ചെടി താനേ അങ്ങനെ മണ്ണിലിട്ടാല് ഉണ്ടാവുന്ന ചെടിയാണ് അതാണ് ആ അതാണ് നലവണ്ണം ഉണ്ടാവും ചെയ്യാം നമ്മള് വായാണ്ട് കുഴിച്ചിട്ടുകഴിഞ്ഞാല് ആ ചെടി പിന്നെ അത്ര ഒരു ഇത് കിട്ടില്ല നല്ലവണ്ണം നമ്മള് ശ്രദ്ധിക്കണം